വടക്കഞ്ചേരിയിലിവിടെ രണ്ടു തീയേറ്ററുകളാണുള്ളത് കെ എ എമ്മും ജയഭാരതിയും നല്ല രണ്ടും നല്ല ഫെസിലിറ്റിയുള്ള തിയേറ്റർ തന്നെയാണ് ഞങ്ങൾ ഫാമിലിയായിട്ടു പോകാറുണ്ട് ഫ്രണ്ട്സായിട്ടു പോകാറുണ്ട് പിന്നെ കപ്പിളായിട്ടു പോകാറുണ്ട് പിന്നെ നല്ല ഒരു വിശേഷം ഓണം ഡേയ്സ് അല്ലെങ്കിൽ വിഷു അങ്ങനെ നല്ലൊരു വിശേഷം ദിവസം മാത്രമേ സിനിമയ്ക്ക് പോകാറുള്ളു അല്ലയെന്നു പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്നു പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യും